പകർച്ച വ്യാധികൾ പകരുന്നത് കൂടുതലും സമ്പർക്കത്തിലൂടെയാണ് അപ്പം പകർച്ച വ്യാ വ്യാധിയുള്ള ആൾക്കാരുമായിട്ട് വലിയ സമ്പർക്കം ഇല്ലാതെ നമ്മൾ ചെ സമ്പർക്കതോടുകൂടി സമ്പർക്കപ്പെടാതിരിക്കുവാൻ പരിശ്രമിക്കുക പിന്നെ ഈ വൈറൽ ഫീവറും ഇതെല്ലാം വരുമ്പോൾ വായുവിലൂടെ ഇതിലേക്കും അപ്പോൾ മാസ്ക് ധരിച്ച് പുറത്തേക്ക് ജലദോഷവും പനിയൊക്കെ വരുമ്പോഴും അങ്ങനെയുള്ളവരുടെ അടുത്തു പോകുമ്പോൾ കൂടുതൽ അടുത്തേക്ക് വരാതിരിക്കാനായിട്ട് അവരോട് മാസ്ക്ക് ധരിക്കുവാനുമായിട്ടും ആവശ്യപ്പെടും നമ്മൾക്ക് ജലദോഷവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാസ്ക്കൊക്കെ ധരിച്ച് പുറത്തേക്ക് പോകത്തുള്ളൂ പകർച്ച വ്യാധികൾ പിന്നെ ഭക്ഷണത്തിലൂടെ വരുന്ന പകർച്ച വ്യാധികളുണ്ട് അത് എന്നാൽ അത് അത് വീട്ടിലുള്ള ഭക്ഷണം മോശമായിട്ടല്ല അല്ലെങ്കിൽ പുറത്തു നിന്നു പോയി കഴിക്കുമ്പം ആ ഭക്ഷണം അങ്ങനെ ഉള്ള ഭക്ഷണം ഒക്കെ നന്നായിട്ട് വേ വേവിച്ച് കോഴികൾക്കൊക്കെ അസുഖങ്ങൾ വരുമ്പോൾ അതിലൂടെ അസുഖം അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കൂടുതലും സമ്പർക്കത്തിലൂടെയാണ് പിന്നെ വലിയ വലിയ പകർച്ച വ്യാധികളൊക്കെയുണ്ട് പിന്നെ ഈ എയ്ഡ്സ് പോലെയുള്ളത് അപ്പോൾ അവർ സ്പർശിച്ചുവെന്നു പറഞ്ഞൊന്നും നമുക്ക് പകരത്തില്ല അവരോട് തെറ്റായ രീതിയിലുള്ളതോ അല്ലെങ്കിൽ അവരുടെ ബ്ലഡ് നമ്മുടെ മുറിവ് പങ്കെടുക്കുമ്പോഴോ പങ്കെ പൊതുവേ ആ ഇത് ഉണ്ടാകുകയുള്ളു അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അങ്ങനെയുള്ള വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല പകർച്ച വ്യാധികൾ വരാതിരിക്കാനായിട്ട് നമ്മൾ കഴിവതും പരിശ്രമിച്ചാൽ നമ്മൾ ശ്രമിച്ചാൽ പരിശ്രമിച്ചാൽ നമ്മൾക്ക് പകർച്ച വ്യാധി വരാതിരിക്കും